പഴയ പാട്ടുകൾ നല്ല പാട്ടുകളായിരുന്നു നല്ല അര്ത്ഥമുള്ള പാട്ടുകളായിരുന്നു നമ്മുടെ മനസ്സിൽ നല്ലൊരു ഇമ്പമൊക്കെ തരുന്ന പാട്ടുകളായിരുന്നു ഇപ്പം മുഴുവന് അടിച്ചുപൊളി പാട്ടുകളാണ് പഴയ പാട്ടുകൽ നമ്മൾ മൂളിപ്പോകുമല്ലോ ഇപ്പോഴത്തെ പാട്ടുകൾ മൂളാൻ പറ്റുന്ന പരിവത്തിലുള്ള പാട്ടുകളല്ലല്ലോ വരുന്നെത് മുഴുവൻ അടിച്ചുപൊളി പാട്ടുകളും ഒക്കെയായത് വരുന്നത് കൊണ്ട് ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല അര്ത്ഥമുള്ള നമ്മളെ നമ്മുടെ മനസ്സിനെ കുളിര്മയേകിപ്പിക്കുന്ന ധാരാളം പാട്ടുകളും ഗായകരും ഗായികമാരുമൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ ഗതി സ്വാഭാവികമായിട്ടും പഴയ പാട്ടുകൾ കേൾക്കുമ്പം മൂളിപ്പോവും മൂളും മൂളാനും ഇഷ്ടമാണ് പാട്ട് നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരാളാണ് നമ്മൾ മനുഷ്യന് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ടെന്ഷന് വരുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങളെ നേരിടുമ്പോഴുമൊക്കെ നമ്മൾ പാട്ടു കേൾക്കുമ്പം നല്ലൊരു ആശ്വാസമാണ് മനസ്സില് ലഭിക്കുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മൂളും സ്വാഭാവികമായിട്ടും മൂളും അത് തന്നെയല്ല ഇപ്പോഴത്തെ പാട്ട് മുഴുവന് നമ്മളെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് വരുന്നത് അത്ര സുഖകരമല്ല ഇപ്പം മുഴുവൻ അടിച്ചുപൊളികളാണ് ചിന്തിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന ഗാനങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ കുറവാണ് നല്ല മലയാളത്തിൽ ഇന്ന് ഏറ്റവും നല്ല ഒരു ഗായികയായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കെ എസ് ചിത്രയാണ് അതുപോലെത്തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഗായകന് എം ജി ശ്രീകുമാറാണ് നല്ല ഒട്ടനവധി നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം പാടിയിട്ടുള്ള ആളാണദ്ദേഹം അതുപോലെത്തന്നെ ചിത്രയും നല്ല ഒരു ആ സ്വരങ്ങൾ കേട്ടാൽത്തന്നെ നമ്മുടെ മനസ്സിനൊരു നല്ലൊരു നല്ല ഉണര്വും ഉണ്ടാകുന്ന സ്വരമാധുരിയാണവര്ക്ക് ഇവര്ക്ക് രണ്ട് പേര്ക്കും അങ്ങനെ പോട്ടേന്ന് കൊണ്ട് മറ്റു ഗായകർ കൊള്ളത്തില്ലെന്നുള്ള അഭിപ്രായമല്ല നമ്മൾക്കുള്ളത് അവരേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഗായകര് ഇവർ രണ്ട് പേരുമാണ് നല്ല രീതിയിൽ മൂളും നമ്മൾ സാധാരണഗതി സ്വാഭാവികമായിട്ട് ബാത്രൂമിൽ കുളിക്കാൻ പോവുമ്പം മൂളിപ്പാട്ടുകൾ പാടാറുണ്ട് അതിപ്പോഴും പാടും മൂളിപ്പാട്ടുകൾ ഭക്തിഗാനങ്ങളാണ് കൂടുതലും നമ്മൾ അത് ക്രിസ്തീയ ഭക്തിഗാനമാണ് നമ്മൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എപ്പോഴും ആ പാട്ടുകളാണ് നമ്മൾ ആസ്വദിക്കാന് കൂടുതൽ ഉതകുന്നത് സിനിമ മലയാള സിനിമാഗാനങ്ങളും നമുക്ക് കൂടുതലിഷ്ടമാണ് അതുപോലെത്തന്നെ തമിഴ് പാട്ടുകൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ നമുക്ക് വലിയ ഇഷ്ടമാണ് സുബ്രഹ്മണ്യ സാറിന്റെ പാട്ടാണ് കൂടുതലും പുള്ളിയെ മലയാളത്തില് അപ്പം അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട് എന്റെ അടുത്ത് നിൽക്കാന് യേശുവുണ്ട് എല്ലാവരും വരുകെന്നും പറഞ്ഞൊരു പാട്ട് ആ പാട്ടെനിക്കെപ്പോഴും ഇഷ്ടമാണ് സാധാരണഗതി നമ്മളെപ്പോഴും അത് മനസ്സിലോര്ക്കുന്നൊരു പാട്ടാണ് അത് നല്ല രീതിയിൽ എപ്പോഴും നമ്മൾ മനസിൽ ആ പാട്ട് ഓര്മയില് വരുന്ന ഒരു പാട്ടാണത്